നമുക്ക് അറിയാം ഓരോരോ വ്യക് മനുഷ്യൻ്റെ ഒരു ജീവിതകാലഘട്ടം നമ്മൾ നോക്കുവാണെങ്കിൽ കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു വയസ്സ് മാറുന്നതനുസരിച്ച് അവരുടെ ജീവിതശൈലികളും മാറും ഇപ്പൊൾ കളികളേക്കുറിച്ച് അല്ലെങ്കിൽ കായിക സംഭവങ്ങളേക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ പ്രായമായവരുടെ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ക്യാരംസ് ബോർഡ് കളി ചെസ്സ് കളി ഒക്കെയാണ് കാരണം അത് തീർച്ചയായിട്ടും അവരുടെ ബുദ്ധിക്ക് വലിയ രീതിയിൽ ഉണർവ്വും ശക്തിയും കൊടുക്കും കാരണവരുടെ ഓർമ്മശക്തിയെ തീർച്ചയായിട്ടും അത് പരിപാലിക്കും നമുക്ക് അറിയാം ഇപ്പോൾ ഓരോ ക്ലബ്ബുകൾ ഒക്കെ ഉണ്ട് ഈ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ക്ലബ്ബുകളിൽ അംഗത്വം എടുത്ത് അവിടെ ക്യാരംസ് ടൂർണമെൻറുകൾ സംഘടിപ്പിക്കാറുണ്ട് ചെസ്സ് ടൂർണമെൻറുകൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ രീതി അവർ കളിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വലിയ രീതിയിലും അത്യാവശ്യം ആരോഗ്യം ഉള്ള ആൾക്കാരൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാർ കളിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ബാഡ്മിൻറൻ പോലെയുള്ള കായിങ്ങളിൽ ഏർപ്പെടാനാണ് ഫുട്ബോളും ക്രിക്കറ്റിലെനിക്ക് തോന്നുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ എന്ന അതിൽ കുറച്ചും കൂടെ അപകടസാധ്യതകൾ ഇല്ലെങ്കിൽ അപകടങ്ങളക്കെ ഉണ്ടാവാൻ സാധ്യതയാ അത് ചിലപ്പം പ്രായമായുള്ളവരൊക്കെ അത് ചിലപ്പം അതിലെ ബുദ്ധിമുട്ട് അവർക്കത് എന്നാ നേരിടാൻ ചിലപ്പം പറ്റി എന്ന് വരില്ല അപ്പം നേരെ തിരിച്ച് എന്നായിരുന്നു എന്നായിരുന്നു അത് ബാഡ്മിൻ്റൻ അങ്ങനത്തെ കളികളൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിലൂടെ വലിയൊരു ശക്തി കിട്ടും അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഫിസി ശാരീരികമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടേതായ കളികളിൽ ഏർപ്പെടാൻ പറ്റും പക്ഷേ അല്ലെങ്കിൽ പോലും അല്ലാത്ത പക്ഷം കൂടുതലും അവർ ന ആകർഷിക്കുന്നത് ഇടുന്നുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങിരുന്നുകൊണ്ടോ അങ്ങോട്ട് മുഖാമുഖം കളിക്കുന്ന കളിയായ ക്യാരംസ് ബോർഡ് ചെസ്സ് കളികളൊക്കെയാണ് അതിലൊക്കെ ചീട്ടൊക്കെ ആൾക്കാർ കളിക്കാറൊക്കെ ഉണ്ട് എന്നാലും എന്നാലും ഞാൻ കൂടുതലും കാണുന്നത് ക്യാരംസ് കളിയും ചീട്ടുകളിയൊക്കെയാണ് പ്രായമായവർ കളിക്കാറുള്ളത് അല്ലെങ്കിൽ ക്യാരംസും ചെസ്സ് കളിയും അപ്പം അതിന് ക്ലബ്ബുകൾ ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും അവർ അവരുടെ സമയം അവർ ഉപയോഗിക്കുന്നു